പിന്നെ ഉണ്ടാവുന്നത് നമ്മുടെ ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് കിട്ടുന്ന വളരെ തുച്ചമായ പൈസയ്ക്ക് കിട്ടുന്ന ചികിത്സ വളരെ അത്യാവശ്യം നല്ല ചികിത്സ തന്നെ കിട്ടുന്നുണ്ടെന്ന് പറയാം പിന്നെ സർക്കാരിൻ്റെ പദ്ധതികളെന്ന് പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രധാൻ മന്ത്രിയുടെ ഒരു എന്തോ ഒരു ഒരു പദ്ധതിയുണ്ടല്ലോ അപ്പഴ് അത് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു പൈസ കിട്ടുന്നുണ്ട് എന്തുകൊണ്ടെന്ന് വച്ചാൽ എൻ്റെ അമ്മുമ്മ കൃഷി ചെയ്യുന്നുണ്ട് അപ്പഴ് അമ്മുമ്മയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പഴ് അങ്ങനെ ഒരു ഇതുണ്ട് സ്ഥലത്തിന് അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് എൻ്റെ അറിവിലുള്ളത് എനിക്ക് കൂടുതലായി ഗവൺമെൻ്റിൻ്റെ ഭാഗയത്ത് നിന്ന് വേറെ പദ്ധതികൾ ഞാൻ എന്തൊക്കെ നമുക്ക് ഉണ്ടെന്ന് അറിയില്ല പിന്നെ കേരളത്തിലൊരു ഇതു വന്ന് വച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പദ്ധതികൾ കുറവാണ് ഈ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാറുണ്ട് അത് നടപ്പാക്കാറുണ്ട് കേന്ദ്രത്തിൻ്റെ പദ്ധതികളിൽ ഞാൻ സന്തുഷ്ടനാണ് പക്ഷെ ഈ കേരളം കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കൂടുതലായി ആൾക്കാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ സംസാരിക്കുക അത് പ്രചരിപ്പിക്കുക അങ്ങനെയില്ല എന്തുകൊണ്ടെന്ന് വച്ചാൽ കേന്ദ്രത്തിന് ഇത് പോകുമെന്നുള്ള രീതിയിൽ പക്ഷെ എന്തായാലും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരിത്